കഴിഞ്ഞ ദിവസം ചോറു വയ്ക്കുകയാ അതികൊന്നായിട്ടില്യ ഒരു രണ്ടാഴ്ച്ച രണ്ടാഴ്ച്ചൻ്റെ മേലേ അത്രേ ആയിട്ടൊള്ളൂ അപ്പം ചോറ് വയ്ക്കാൻ വേണ്ടീട്ട് അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത് ഗ്യാസിലല്ല അപ്പം തീ കത്തിക്കണം തീ കത്തിക്കാൻ വേണ്ടീട്ട് ഞാൻ എന്തെയ്തു നമുക്ക് മണ്ണെണ്ണ ഒന്നൂല്ല തീ കത്തിക്കാൻ കുറച്ച് പാടാ അല്ലെങ്കി തെങ്ങിൻ്റെ ഇതുണ്ടല്ലോ ഈർക്കിൽ ഓലയില്ലേ അതൊക്കെ വച്ചാ തീ കത്തിക്കുന്നത് അല്ലേ പേപ്പർ വച്ച് കുറച്ചുനേരം കഷ്ടപെട്ടാലെ നമുക്ക് തീ കത്തിച്ച് കിട്ടുളളൂ അപ്പം കൊറച്ച് പെട്രോളും ഓയിലും മിക്സായിട്ടുള്ള സംഭവം ഇവിടെ ഇരിക്കുന്നിണ്ടായിരുന്നു അപ്പം ഞാനെന്തെയ്തു അതെടുത്ത് ഒഴിച്ചാ തീ കത്തൂന്നറിയാം ഞാനതെടുത്ത് അങ്ങ് ഒഴിച്ചു ഒഴിച്ചപ്പം തന്നെ ആദ്യം പേപ്പർ കത്തികൊണ്ട് ഇരിക്കയായിരുന്നു അപ്പഴാണ് ഇതിൻ്റെ മേലോട്ടൊഴിക്കുമ്പോ ഹൈ ഇതില് തീ അങ്ങ് ആളി കത്താൻ തുടങ്ങി എന്നിട്ട് ഇതിൻ്റെ ആ ഞാൻ ഒഴിച്ച കുപ്പീൻ്റെ മൂടീൻ്റെ സൈഡിലോട്ടും തീ ആയി അപ്പം ഞാൻ എന്തെയ്തു വേഗം പുറത്തോട്ട് ഇട്ടു പുറത്തോട്ട് ഇട്ടപ്പം അതിങ്ങനെ ഒഴുകി അതായത് അതിൻ്റെ ഉള്ളില് ഉള്ളിലുണ്ടായിരുന്ന പെട്രോളും ഡീസലും കൂടി പുറത്തോട്ട് ഒഴുകിയപ്പോ അതിലൊട്ടും തീ ആളിക്കത്തി ഞാനെന്തെയ്തു വെള്ളം ഒഴിച്ചപ്പോ ഒന്നുംകൂടി ഹൈറ്റില് ഹൈറ്റിലായിട്ട് തീ ഇങ്ങനെ കത്തികൊണ്ടേ ഇരിക്കുകയാ കുറേ നിന്ന് എന്നിട്ട് കുറേ മണ്ണും ചാരം ഉണ്ടാർന്ന് അടുപ്പില് അടുപ്പിലെ ചാരമൊക്കെ വാരി വേഗം അതിൻ്റെ മേലോട്ട്ട്ടിട്ടാണ് അന്ന് തീ അണച്ചത് അയ്യോ ഇനിയൊരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല പക്ഷേ അതൊരു ശെരിക്കും പേടിച്ചു പോയിട്ടോ ആ ഒരു ഇന്സിഡൻറ്റ്